ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി രണ്ട് മൂന്ന് മൂന്നേ രണ്ടായിരത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി നാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ച്